പട്ടി കടിയേറ്റാൽ ആദ്യമേ നമ്മൾ അദ്ദേഹത്തെ സ്വസ്ഥമായൊരു സ്വര്യമായൊരു സ്ഥലത്ത് കാറ്റും വെളിച്ചവും ലഭിക്കുന്ന ഒരു സ്ഥലത്ത് കിടത്തുക അതിനുശേഷം ആൾക്ക് അപ്പോൾ തന്നെ ആ കുറച്ച് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ആ മുറിവുടെ ഭാഗത്ത് വൃത്തിയായി കഴുകുക അതിനുശേഷം അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുക അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തിന് ഒരു ഒരു വെപ്രാളപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നുമില്ലാതെ അതേ ശാന്തമായൊരു അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ യാത്രയിലും വീട്ടിലായിരിക്കുമ്പോഴും കൊടുക്കണം അദ്ദേഹത്തിന് ടെൻഷൻ നൽകുന്ന രീതിയിലൊരു യാതൊരുവിധത്തിൽ സംസാരങ്ങൾ പാടില്ല പിന്നീട് അദ്ദേഹത്തെ നമുക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുക ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ഇഞ്ചക്ഷൻ ആവശ്യമായത് നൽകുവാനും തുടർന്ന് ഡോക്ടറ് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ഉള്ള ഇഞ്ചക്ഷനുകൾ കൃത്യതയോടെയും വ്യക്തമായും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ആവിശ്യമായ പ്രാഥമിക ശുശ്രൂഷകളും വൈദ്യശുശ്രൂഷകളും നൽകി അദ്ദേഹത്തിനെ ഇടയ്ക്ക് സന്ദർശിച്ച് ആവശ്യമായ ഇഞ്ചക്ഷൻ എടുത്ത് രോഗി അത് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നും നമ്മൾ ആ ഒരു പഠനം നടത്തുക ആവശ്യമായ അന്വേഷണങ്ങളൊക്കെ നടത്തി അയാൾക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ ശ്രമിക്കുക